ഞാന് കവിത എഴുതിയിട്ടുണ്ട് സമ്മാനം ആയിട്ട് എന്ന് വച്ചിട്ടില്ല സമ്മാനം കൊടുക്കാന് അല്ല പക്ഷേ എഴുതിയിട്ടുണ്ട് കവിത കൊടുക്കണം എന്ന് വിചാരിച്ചെഴുതിയതാണ് പക്ഷേ കൊടുക്കാന് പറ്റിയിട്ടില്ല അവര്ക്ക് ഇഷ്ടപ്പെടുവോന്നും എനിക്ക് അറിയത്തില്ല കവിതയെന്ന് നമുക്കുണ്ടല്ലോ ചിലത് നമുക്ക് എക്സ്പ്രെസ് ചെയ്യണമെങ്കില് നമ്മക്ക് ഒന്നെങ്കില് പറയണം ഇല്ലെങ്കില് നമ്മള് എന്തെങ്കിലും നമുക്ക് പറയാനുള്ള മടി കൊണ്ടായിരിക്കും ചിലര് ലേറ്റര് എഴുതും കഥ എഴുതും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു മാര്ഗ്ഗം എന്നുള്ളത് കവിതയാണ് കവിതയിലൂടെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ എക്സ്പ്രെസ് ചെയ്യാന് പറ്റും

എത്ര നല്ല നല്ല കവിതകള് ഉണ്ട് മുരുകന് കാട്ടാക്കടയുടെ കവിതകളൊക്കെ എടുത്ത് നോക്കുമ്പോള് അതൊക്കെ ഓരോ പച്ചയായ മനുഷ്യജീവിതമാണ് അയാള് വരച്ചിട്ടേക്കുന്നത് അത് നമ്മള് ചിത്രങ്ങളിലൂടെ നമുക്ക് വേണങ്കില് അത് എക്സ്പോട്ട് ചെയ്യാന് പറ്റും പക്ഷേ നമ്മക്ക് എനിക്ക് തോന്നുന്നു കൂടുതലുംകൂടെ നമുക്ക് ഒരു വ്യക്തത എന്നുള്ളത് കുറച്ച് നല്ല നല്ല വരികളിലൂടെ നമുക്ക് നമ്മടെ സ്നേഹം നമ്മടെ പ്രണയം ഒക്കെ നമുക്ക് ആ ഒരു വികാരം നമ്മളിലേക്ക് എത്തിക്കും പാട്ടുകളിലൂടെയൊക്കെ പറ്റുന്നതുപോലെ കവിതയിലും കൂടെ പറ്റും എന്നാണ് എന്റെ ഒരു ഇത് ഇപ്പം ഞാന് കവിത എഴുതിയിട്ടുണ്ട് വളരെ കുറച്ച് വാക്കുകള് കൊറച്ച് ഇത് ഇന്നുമുണ്ട് എന്റെടുത്ത് ആ കവിത പക്ഷേ എനിക്ക് കൊടുക്കാന് പറ്റിയിട്ടില്ല ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേര്ത്ത് വയ്ക്കുന്ന കുറച്ച് നല്ല വരികള് ഓ നമ്മക്കൊണ്ടല്ലോ ഇപ്പം ഓര്ത്താല് എനിക്ക് വരുന്ന് വരണമെന്നില്ല ആ വരികള് ഒന്നും പക്ഷേ നിമിഷം നമ്മുടെ മനസിലോട്ട് വന്നതാണല്ലോ നമ്മള് കുത്തികുറിയ്ക്കുക വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് വരികളാണ് ഇപ്പഴും ഞാന് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്നേലും കൊടുക്കാന് പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തെങ്കിലും ആക്കി കൊടുക്കുവാന് ആഗ്രഹിക്കുന്നുണ്ടത്